ഹലോ മാലിന്യ സംസ്കരണ കമ്പനിയല്ലേ ഞാൻ എൻ്റെ പേര് റ്റിറ്റി ഞാൻ ചുക്കുംപാറ എന്ന സ്ഥലത്തുനിന്നാണ് വിളിക്കുന്നത് അപ്പോൾ എനിക്ക് ഒരു കാര്യ അറിയാൻ വേണ്ടിട്ടായിരുന്നു ഞാനിപ്പം വിളിക്കുന്നത് എൻ്റെ വീട്ടില് രണ്ടു മൂന്നു രോഗികളുണ്ട് എൻ്റെ അച്ഛനും അമ്മയുമൊക്കെ കിടപ്പുരോഗികളാണ് അവർക്ക് പാമ്പേഴ്സ് മാറ്റേണ്ടതുണ്ട് പിന്നെ വാട്ടർ ബെഡാണ് ഉപയോഗിക്കുന്നത് അതൊക്കെ ചേഞ്ച് ചെയ്യേണ്ടതുണ്ട് അപ്പം ഷുഗർ രോഗികളായതുകൊണ്ട് ഇൻസുലിൻ എടുക്കേണ്ടതുണ്ട് അപ്പോൾ ഈ വേസ്റ്റുകളൊക്കെ ഒന്നു സംസ്ക്കരിക്കാനുള്ള സൗകര്യം ഞങ്ങളുടെ വീട്ടിലില്ല അപ്പോൾ അതിന് സംസ്കരിക്കാനാവശ്യമായ ഒരു സൗകര്യം ഞങ്ങൾക്ക് ചെയ്ത് തരാമോ അതെങ്ങനെയാണെന്നൊന്ന് പറഞ്ഞു തരണം അതിന് ആവശ്യമായ ടെസ്റ്റ് ബിന്നോ അല്ലെങ്കില് അതെടുത്ത് കൊണ്ട് പോകാനും ഒക്കെയുള്ള ഒരു സൗകര്യം എങ്ങനെയുണ്ടെന്നൊന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാനിപ്പൊ വിളിച്ചതാണ് അതിനെപറ്റി ഇൻഫർമേഷൻ അറിയണമെന്ന് ആഗ്രഹമുണ്ട് അതൊക്കെയൊന്ന് പറഞ്ഞു തരണേ